മലയാള ഭാഷയുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ നമ്മള ദ്രാവിഡ ഭാഷ നിന്ന് ഉരിത്തിരിഞ്ഞ് വന്നതാണ് മലയാള ഭാഷാ പിന്നെ നമ്മുടെ തമിഴ് സംസ്കൃതം എന്നിവയേൻ്റെ ഒക്കെയൊരു മോഡിഫിക്കേഷനാണ് മലയാള ഭാഷയായിട്ട് കരുതുന്നത് പിന്നെ നമ്മുടെ മലയള ഭാഷയുടെ പിതാവെന്ന് പറയുന്നത് നമ്മളുടെ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ ഒരു വലിയൊരു ഘടകം മലയാള ഭാഷയിലുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷാ എങ്ങനെയാണെന്ന് വികാസ പരിണാമമെന്ന് വെച്ചാൽ മെയ്നായിട്ട് പറയുന്നതു പോലെ പണ്ട് പോർച്ചുഗീസുകാർ ചൈനക്കാർ ഇവരൊക്കെ ഭരിച്ചപ്പോൾ നമക്ക് അവരുടേതായ കുറേ ഭാഷകൾ നമ്മളുടെ മലയാള ഭാഷയിൽ ഇപ്പം നമ്മൾ വർത്താനം പറയുന്നതിലങ്ങ് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പപ്പായ അതൊക്കെ പോച്ചുഗീസുകാരുടെ ഭാഷയിൽ നിന്ന് വന്നതാണ് ഈ പറങ്കി മാങ്ങ ഇതൊക്കെ അവരുടെ ഭാഷയാണ് നമ്മളുടെ മലയാള ഭാഷയിലല്ല പക്ഷേ നമ്മ അത് ഇപ്പോൾ നമ്മള മലയാള ഭാഷയിലെ പോലെത്തന്നെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചീനച്ചട്ടി ചീന വല അതുപോലെ കുറേ ലാറ്റിൻ ഭാഷകളൊക്കെ നമ്മളുടെ മലയാള ഭാഷയിൽ ഉൾപ്പെട്ടിട്ട് അതിപ്പൊരു മലയാള ഭാഷയായിട്ടു തന്നെ അങ്ങ് മാറി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഓരോ പുറത്തു നിന്ന് ഇള്ള ഓരോരോ ഓരോരുത്തരോട് സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ മലയാള ഭാഷയിൽ ഓരോ വികാസങ്ങളാണ് നമ്മളിപ്പം സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്